ആ ഇതാരാ സംസാരിക്കുന്നത് ആ അതെ ആ അതെ അതെ ആ ആ എന്താ എന്താ കുഴപ്പം എന്തേ ആ അലർജി ഉണ്ടായിട്ട് ഉണ്ടോ ആ ആ എത്ര കാലം ആയി തുടങ്ങീട്ട്

ആ ആ ഫുഡ് അലർജി അങ്ങനെ എന്തെങ്കിലും ആണോ അതോ റൂമിൽ ആർക്കും ഫാമിലിയിൽ ആർക്കെങ്കിലും പ്രശ്നം ഉണ്ടോ ആ റൂമില് പിജിയിൽ ആണല്ലേ നിൽക്കുന്നത് റൂമിൽ എത്ര പേരുണ്ട് ആ ചിലപ്പോൾ കൺജസ്റ്റഡ് ആയിട്ടുള്ള ഏരിയയിൽ നിൽക്കുന്നവർക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് ചിലപ്പോൾ അതുകൊണ്ട് ആയിരിക്കാം ആ അതെ ഇത് എങ്ങനെയാ ഡോക്ടറെ ഇതിന് മുമ്പ് കൺസൾട്ട് ചെയ്തിട്ടുണ്ടോ

ആ എത്ര കാലം മരുന്ന് കഴിച്ചിട്ട് ഉണ്ട്

ആ ഇത് ആ ഇതിപ്പോൾ ഒരു ഓയിൻമെൻറ്റ് ഒരു ക്രീമ് പറയാം അത് ഒന്ന് അപ്ലൈ ചെയ്ത് അതിൻ്റെ ശേഷം ഒന്ന് ലൈറ്റ് ആയി പ്ലേസ് ചെയ്താൽ മതി ഒന്ന് ചോദിച്ചാൽ മതി ആ എച്ച് എച്ച് മൈറ്റ് എന്നുള്ള ഒരു ക്രീമ് ഉണ്ട് ആ ക്രീമും അത് കൂടെ തന്നെ അതിൻ്റെ തന്നെ ഒരു സോപ്പ് ഉണ്ട് അത് പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാൻ പാടില്ല ആഴ്ചയിൽ ഒരു വട്ടം അങ്ങനെ രണ്ടാഴ്ച കൂടുമ്പോൾ അങ്ങനെയാന്ന് യൂസ് ചെയ്യേണ്ടത് എച്ച് എച്ച് മൈറ്റ് ആ ഓക്കെ അതെ ആ ആ ഓക്കെ ആ ശരി ആ ശരി ശരി ആ ആ ഓക്കെ ആ ആ ആ ഈ ഓയിൻമെൻറ്റ് യൂസ് ചെയ്താൽ മതി ഓക്കെ താങ്ക് യൂ